ആ ആ ഫ്രണ്ട്സ് ഹോട്ടലാണോ ആ അവിടെ എന്തൊക്കെ ഉണ്ട് കഴിക്കാന് ചിക്കൻ്റെ കേൾക്കത്തില്ല ആ എന്നതൊക്കെ ഉണ്ട് സ്പെഷ്യൽ

ഒരു പതിനഞ്ച് പേര്ക്ക് കഴിക്കാൻ എടുക്കാനായിട്ട് ഒരു പതിനഞ്ച് പേര്ക്ക് പൊറോട്ടായും മുട്ടക്കറിയും ഉണ്ടോ

ഒരു ആ പതിനഞ്ച് പാർസൽ എടുക്കാൻ ആ ആ ഹോട്ട് എത്ര രൂപയാണ് പൊറോട്ടായ്ക്ക് പന്ത്രണ്ട് മുട്ടക്കറിക്കോ ടോട്ടൽ എത്രയാണ് മൊത്തം

പതിനഞ്ച് പേർക്കാണ് ഉള്ളത് ഒരു അമ്പത് പൊറോട്ട

പൈസ കൂടുതൽ ആണല്ലൊ അത്

ആ ഇപ്പം ഇത്രയും ഒന്നിചെടുക്കുമ്പോൾ ഇച്ചിരി കുറച്ച് തരികയില്ലേ നല്ല ഫുഡാണോ പുറത്തൊക്കെ നല്ല മ് ഞാന് ആ ഇത് തിരിച്ച് പോയില്ല അവിടുന്ന് വായിച്ച് അവിടുന്ന് അവിടുത്തെ ആ ഹോട്ടലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതെ എഹ് ഞാൻ ഉണ്ട് ഇപ്പം ഒരു അരമണിക്കൂറിനകം വണ്ടി വിട്ടേക്കാം ജ്യൂസ് കൂള് ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ

ജ്യൂസ് അത് അതിന് എന്നാ വില അര ലിറ്ററിന്റെ ആ ഫ്രെഷ് ജ്യൂസാണ് ചോദിച്ചത്

ആ അതിൽ തന്നെ അത് ഒര് പതിനഞ്ചെണ്ണം പിന്നെ ആ ആപ്പിൾ ജ്യൂസാണോ അതോ ആ എന്നാ മാംഗോ ജ്യൂസ് വെച്ചേരെ അതൊര് പതിനഞ്ച് പിന്നെ ഐസ്ക്രീമുണ്ടോ മ് അതിന് എന്നാ വില

മ് ആ ഐസ്ക്രീമും വേണം ഒരു അതും പിള്ളേര്ക്കുള്ളത് എന്താണ് ഉള്ളത് പിള്ളേർക്ക് കഴിക്കാനുള്ളത്

ആ വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ

ആ അപ്പം പിള്ളേര്ക്ക് കഴിക്കാൻ പറ്റിയ എന്ത് സാധനമാണ് ഉള്ളത് നല്ല കഴിക്കാൻ ആണ് പിള്ളേര്ക്ക് ഫ്രൈഡ്റൈസ് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഒരു മ് വ അഞ്ച് പിള്ളേര്ക്കുള്ളത് മതി ആ അവര്ക്കോരോ ചെറിയ ഐസ്ക്രീമും അതും പിന്നെ വേറെ

ആ ചൂട് വേണം നല്ല ചൂട് ചൂടുണ്ടോ

നല്ല ക്ലീനാണോ അവിടം നല്ല വൃത്തിയൊക്കെ ഉള്ളതാണോ

ഞാൻ ആ ആ എന്നാൽ പതിനഞ്ച് ഞാൻ പറഞ്ഞ അത്രയും പൊറോട്ട അമ്പതെണ്ണം പിന്നെ പിള്ളേര്ക്കുള്ളത് പിന്നെ ജ്യൂസ് കുട്ടികള്ക്ക് ഉള്ള ഐസ്ക്രീമ് മ് എല്ലാം കൂടെ എന്നാ കൊടുത്ത് വിട്ടേക്കുമോ വണ്ടിക്ക് ആ എന്നാൽ ശരി ഓക്കെ